ഈ പറഞ്ഞ സ്റ്റാമ്പുകൾ നാണയങ്ങൾ അല്ലെങ്കിൽ കല്ലുകൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ശേഖരിച്ച് വെയ്ക്കുന്നതു കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു വിദ്യാഭാസ മൂലം മൂല്യം എന്ന് പറയുന്നത് എന്താച്ചാൽ എന്താണ് നമ്മളിപ്പം ഇപ്പം നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതെല്ലാം ശേഖരിക്കാൻ തുടങ്ങിയത് എൻ്റെ അച്ചച്ചൻ എനിക്ക് ഇതു തന്ന സമയം തൊട്ടാണ് അതായത് അച്ചച്ചൻ്റെ ചെറുപ്പ കാലത്തു ഉണ്ടായിരുന്നൊരു സാധനം എനിക്ക് തന്നപ്പോൾ തൊട്ടാണ് ഞാൻ ഇതെല്ലം ശേഖരിക്കാൻ തുടങ്ങിയത് അച്ചച്ചൻ്റെ സാ കാലമെന്ന് പറയുമ്പോൾ എനിക്ക് മുമ്പ് മൂന്ന് തലമുറ മുമ്പ് അവർ ഉപയോഗിച്ചു കൊണ്ടിരുന്ന സ്റ്റാമ്പുകളും അല്ലേ നാണയങ്ങളും എല്ലാമായിരുന്നു അപ്പം ഒരുപാട് കാലങ്ങൾക്കു മുമ്പ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉള്ള സാ സാധനങ്ങൾ എല്ലാം ശേഖരിച്ചു വെയ്ക്കുമ്പോൾ അത് ഇനി വരുന്ന തലമുറക്കാണെങ്കിലും ഇതെല്ലാം അന്നത്തെ ഒരു സാധനമാണ് അല്ലേ നമ്മളിപ്പോൾ മ്യൂസിയങ്ങളിൽ ആണെങ്കിലും നമ്മൾ പഴയൊരു സാധനം ഇപ്പം മ്യൂസിയങ്ങളിലൊക്കെ പോകുന്ന ഒരുപാട് പേരുണ്ട് പഴയ കാര്യങ്ങൾ എല്ലാം അറിയാൻ അറിയാൻ ഇഷ്ടമുള്ളവരും കാണാൻ ഇഷ്ടമുള്ളവരും എല്ലാം അപ്പം അതുപോലെ ഒരു ഒരു പുരാതന വസ്തു തന്നെയാണ് ഈ പറയുന്ന പഴയകാലത്തെ സ്റ്റാമ്പുകളും നാണയങ്ങളും എല്ലാം ഇതെല്ലം ശേഖരിച്ച് വെയ്ക്കുന്നതു കൊണ്ട് നമുക്ക് കിട്ടുന്നൊരു ഗുണം എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്തെ കുറിച്ച് അറിയാനും ഇതെല്ലാം മറ്റുള്ളവർക്ക് ഈ അറിവ് പകർന്ന് കൊടുക്കാനും എന്താണെങ്കിലും പണ്ടത്തെ കാലത്താണെങ്കിലും ഇപ്പോഴത്തെ കാലത്താണെങ്കിലും നടക്കുന്ന കാര്യങ്ങളുടെ ഒരു ബോധം ഉണ്ടാക്കാനൊക്കെയൊരു നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യം തന്നെ ആണ് ഈ പറയുന്നത് ഒരു നല്ല ശീലം തന്നെ ആണ് ഇങ്ങനെ ഉള്ള സാധനങ്ങൾ എല്ലാം നമ്മൾ ഇങ്ങനെ സാ സൂക്ഷിച്ചു വെയ്ക്കുന്നത് കൊണ്ട് നമുക്കു കിട്ടുന്നത് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ഉള്ള എന്താച്ചാൽ നമ്മൾ ഒരുപാട് കാലം ഇപ്പം നമ്മ് നമ്മൾ ആണെങ്കിൽ ഇപ്പം നമ്മൾ ഇന്ന് അല്ലേ നാളെ മരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം നമ്മളെ കുറിച്ച് നാല് പേര് അറിയണമെങ്കിൽ അല്ലേ നമ്മൾ ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നുവെന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നാലേ നാല് പേര് ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്നെങ്കിലും മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അതുപോലെ ആണ് പണ്ടത്തെ കാര്യങ്ങൾ എന്തായിരുന്നു എന്ന് നമ്മൾ അറിയണമെങ്കിൽ നമ്മളൊരാൾ ഇതു ഇങ്ങനെ സൂക്ഷിച്ച് ഇങ്ങനെ വെച്ച് മറ്റുള്ളവർക്ക് പകർന്നു നൽകുമ്പോഴാണ് അവിടെ വിദ്യാഭാസം ഉണ്ടാവുക